എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം എന്നു പറയുന്നത് ഇപ്പോൾ ഞാനും എൻ്റെ അമ്മയും അനിയത്തിയും അച്ഛനും കൂടെ അമ്മാമ്മ വീട്ടിൽ വരുവായിരുന്നു അപ്പം അവിടെ വന്നിരുന്നൊരു ഉച്ച സമയത്താണ് വന്നത് അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്നൊരു കുഞ്ഞു പൂച്ചക്കുട്ടീടെ കരച്ചിൽ കേട്ടു കുഞ്ഞു പൂച്ചക്കുട്ടി കരയുന്നത് പോലെ കേട്ടു അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി നോക്കിയപ്പോൾ ഒരു കാക്കയാണെങ്കിൽ ആ കുഞ്ഞു പൂച്ചക്കൂട്ടീനെ ഇങ്ങനെ കൊത്തിയെടുത്ത് മരക്കൊമ്പിൽ കൊണ്ടു വെച്ചിട്ട് അതിനിങ്ങനെ കൊത്തുന്നു അപ്പം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമായിപ്പോയി ഞാൻ വേറെ ആരെയും വിളിക്കാൻ നിന്നില്ല ഞാൻ സ്വന്തമായിട്ട് എനിക്കിതിനെ അതിനെ രക്ഷിക്കണമെന്ന് തോന്നിയതുകൊണ്ട് അപ്പോൾ ഞാൻ അടുത്തു കിടന്നൊരു കല്ലിങ്ങനെ എടുത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് കല്ലെടുത്തപ്പോഴത്തേക്ക് എനിക്കു തോന്നിയത് എന്നു വെച്ചാൽ ഞാൻ എറിഞ്ഞാൽ ആ കാക്ക അതിനെ കൊത്തി എടുത്തോണ്ട് പോകും അപ്പോൾ നമ്മൾ ആ കൊത്തുന്ന സമയത്ത് ഒന്നും ചെയ്യരുത് കൊത്തീട്ട് ഇങ്ങനെ കൊമ്പിങ്ങനെ പൊക്കുമല്ലോ തല പൊക്കുന്ന സമയത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ട് താഴെ വിടുമെന്ന് തോന്നി അങ്ങനെ ഞാനാ കൊത്തിയിട്ട് ഇങ്ങനെ പൊങ്ങിയ തല ഇങ്ങനെ പൊക്കി നോക്കിയ സമയത്ത് ഞാൻ കല്ലെറിഞ്ഞതും കാക്ക ഇങ്ങനെ കാല് വിട്ടിട്ട് അങ്ങ് പോയിക്കളഞ്ഞു ഓ പറന്നു പോയി കളഞ്ഞു അപ്പോൾ പൂച്ച ഇങ്ങനെ താഴെ വന്ന് ടപ്പോന്നും പറഞ്ഞിങ്ങനെ വന്നു വീണു അപ്പോൾ ഞാൻ ചത്തു കാണും ഞാൻ ഇത്രേയും കഷ്ടപ്പെട്ട് വെറുതെ ആയെന്ന് വിചാരിച്ചു പക്ഷേ ഓടിച്ചെന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിന് ജീവനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ എന്നാ കുറച്ചു മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൊക്കെ വിരിഞ്ഞു വന്നേ ഉള്ളായിരുന്നു അപ്പോൾ ഭയങ്കര കരച്ചിലും വേദന എടുത്തിട്ടായിരിക്കും മുറിവൊക്കെയുണ്ട് അങ്ങനെ ഞാൻ പിന്നെ അതിനെ എടുത്ത് അമ്മേനെ ഒക്കെ കൊണ്ട് കാണിച്ച് അമ്മ അതിനെ കുഞ്ഞു ഒരു ബോക്സിനകത്ത് ആക്കി തുണിയൊക്കെ ഇട്ടു കൊടുത്ത് അതിനകത്ത് കിടത്തി നല്ലോണം നോക്കി കുറച്ച് കാലമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ ഞങ്ങൾ അമ്മാമ്മേടെ വീട്ടിൽ ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ അതിനെ എടുത്തോണ്ട് പോയി ഇത് പറയാനുള്ള കാരണം എന്നു വെച്ചാൽ എനിക്കൊരുപാട് സന്തോഷമായി കാരണം ഞാനൊരു ഒരു ജീവനെ രക്ഷിക്കാൻ ഞാൻ കാരണമായല്ലോ എന്നാലോചിച്ചപ്പോൾ എനിക്കതിൽ ഭയങ്കര വിഷമമായി കാരണം മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ ഞാൻ രക്ഷിച്ചല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ടായി അപ്പോൾ എനിക്കതിലൊരിക്കലും മറക്കാൻ പറ്റാത്തതും കുറച്ചു പ്രിയങ്കരമായിട്ടുള്ള ചെറിയൊരു സ്മരണ ഇതാണ്